അപ്പോൾ നമ്മള് നട്ട എന്തെങ്കിലും ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ചെറിയൊരു പത്തുമണിച്ചെടി ആയിക്കോട്ടെ അത് പൂത്തുനിൽക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും സന്തോഷം ഉണ്ടാവുമല്ലോ അത് അതൊരു പ്രത്യേക ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഹോബ്ബിയാണ് ഗാർഡനിങ് വീട്ടിലെ എല്ലാവരും ഗാർഡനിങ്ങിനു അത്യാവശ്യം ഇൻററസ്റ്റ് കാണിക്കുന്ന ആൾക്കാരാണ് നമുക്ക് പറമ്പില് വേണ്ട സാധനങ്ങളും പറമ്പില് അപ്പച്ചനും അവരൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്

ഞാനായിക്കോട്ടെ എൻ്റെ സഹോദരങ്ങളായിക്കോട്ടെ എന്തൊരു സാധനം നട്ടാലും നമുക്ക് ഒരു സംതൃപ്തി എന്നൊരു കാര്യമുണ്ടാവും അത് നട്ടു കഴിഞ്ഞു സംതൃപ്തി എന്നു വരുന്നുവെന്ന് വച്ചാൽ അതിൽനിന്നു അദ്യമായിട്ടൊരു പൂവുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇല ഉണ്ടാവുമ്പോഴോക്കെയാണ് നമുക്കൊരു സന്തോഷം നമ്മുടെ മനസ്സിനൊരു കുളിർമയൊക്കെ വരുക ഈ ചെടിയായിക്കോട്ടെ മരമായിക്കോട്ടെ ഇപ്പോൾ നമ്മളൊരു പേരത്തൈ നട്ടുവെന്നു വെച്ചോ പേരക്ക ഉണ്ടാവുമ്പോൾ അല്ലേ പറയുക കണ്ടോ അപ്പച്ചാ ഞാൻ നട്ട പേരക്കയിൽനിന്നാണ് പേരത്തൈ ഉണ്ടായത് അതൊരു സന്തോഷമാണ് അപ്പോൾ ആ അനുഭവമെന്നു പറയുമ്പോൾ വിവരിക്കാൻ വാക്കുകളിൽ ഒതുങ്ങുന്നതായിരിക്കില്ല പേർസണൽ മനസ്സിനെ അത്രത്തോളം കുളിർമയും അത്രത്തോളം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് നമുക്കത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രത്തോളം അത് നമുക്ക് ശരിയാവും എന്നെനിക്കറിയില്ല പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾക്കതീതമായ കാര്യമാണ് ഞാനെന്തെങ്കിലും നട്ടാൽ അത് എന്ന് ഉണ്ടാവുകയാണേലും വേണ്ട ഒരു തക്കാളിത്തൈ മാറ്റി നട്ട് നമ്മുടെ ഉണ്ടാവുമ്പോൾ നിറച്ചും തക്കാളി കായ്ച്ചു നിക്കുമ്പോൾ പറയില്ലേ കൊച്ച് നട്ട തക്കാളിയാണെന്ന് അതാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്